ഞാനങ്ങനെ സ്വാധ് വരാൻ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിഭവം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരി ആണ് അപ്പം അത് സാധാരണ എല്ലാവരും ഉണ്ടക്കാറ് ജസ്റ്റ് ഒന്ന് മാവ് ഏത് മൈദ മാവ് കുഴച്ച് പഴമെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക അതു കുറച്ചും കൂടെ നമുക്കിങ്ങനെ അപ്പക്കാരം ഒന്നും ഇടാണ്ട് കുറച്ച് പൊന്തി വരണമെങ്കിൽ നമ്മളിത്തിരി അരിമാവ് ചേർത്താൽ മതി പഴംപൊരിയിൽ പിന്നെ അല്ലാണ്ട് ആണെങ്കിൽ അത് അധികം എണ്ണ ഒന്നും കുടിക്കാതെ അതായത് അരിമാവ് ചേർക്കുകയാണെന്ന് വച്ചാൽ കുറച്ച് എണ്ണ കൂടുതൽ കുടിക്കും പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്കെന്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അതായത് ഈ മൈദപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പഞ്ചസാര പിന്നെയെന്താ ഉപ്പ് പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇട്ടിട്ട് ഇത്തിരി അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ നല്ലോണം ഇതാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ പഴംപൊരിയിലാവും അങ്ങനെ സാധാ എടുത്താൽ അങ്ങനെയൊക്കെയാണ് പിന്നെ സ്വാദ് കൂടാനാണ് നമ്മൾ ഈ പഞ്ചസാരയും ഉപ്പും കൂടി ഇടുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ വെറുതെ മാവ് ഇടുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കാറ്